ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമ്മളുടെ വിദ്യ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സിറ്റി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകൾ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് ഇവിടെ ഫറൂഖ് കോളേജുണ്ട് ഫറോക്കിൽ അത്യാവശ്യം വലിയൊരു കോളേജും കാര്യങ്ങളൊക്കെ ആണ് അവിടെ പല രീതിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ അതായത് നമ്മുടെ താമരശ്ശേരി ഉണ്ട് സ്കൂൾ പിന്നെ മുക്കത്ത് ഇണ്ട് കോഴിക്കോട് സിറ്റി തന്നെ ഉണ്ട് പിന്നെ കൊടുവള്ളി ഉണ്ട് അങ്ങനെ പലസ്ഥലങ്ങളിലും സ്കൂളുകളും കാര്യങ്ങളൊക്കെണ്ട് അപ്പോൾ അത് നമ്മള് നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കണെങ്കിൽ കുറച്കൂടി നല്ലതാണ് പിന്നെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇപ്പം സ്കൂൾ കഴിഞ്ഞു പ്ലസ്ടു ഓക്കേ കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആണെങ്കിലും നല്ല രീതിയിലുള്ള കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് മുസ്ലിംസിൻ്റെ ഏരിയയിലാണ് കൂടുതൽ ആയിട്ടും കോളേജുകളും കാര്യങ്ങളൊക്കെ ഇള്ളത്ന്ന് വേണമെങ്കി പറയാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്കൂള് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അമൃത വിദ്യാലയം അങ്ങനെ പലരീതിയിലുള്ള സ്കൂളുകളുണ്ട് പിന്നെ സിൽവർ ഹിൽസ് പ പബ്ലിക് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാണ് കളരിപ്പയറ്റ് അങ്ങനെ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതിനും സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്